മഴക്കാലത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വർഷം മഴ വളരെക്കുറവാണ് നമുക്ക് ജൂൺ മാസം ഒന്നും മഴ കിട്ടിയിട്ടില്ല കഴിഞ്ഞവർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഡാമിലൊക്കെ അതായത് ഇടുക്കി ഡാമിലൊക്കെ ആ ഭയങ്കരമായിട്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് പറയുന്നത് കേട്ടു എൺപത്തൊന്ന് ശതമാനം വെള്ളം കഴിഞ്ഞ പ്രാവശ്യം ഉള്ള സമയത്ത് ഇപ്പോൾ ആകെ ഇരുവത്തൊന്ന് ശതമാനം വെള്ളവേയൊള്ളെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കറൻറ്റിൻ്റെ അതായത് കറൻട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് ഇടുക്കി ഡാം അതാ ഡാമുകളിൽ നിന്നൊക്കെയാണല്ലോ നമുക്ക് കറൻറ്റ് വരുന്നത് അപ്പോൾ കറൻറ്റ്ന് കറൻറ്റെതൊക്കെ നമുക്ക് വളരെ കുറവായിരിക്കുംന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് പിന്നെ അതുപോലെതന്നെ വരൾച്ച അത് നമുക്ക് കിണറ്റിൽ വെള്ളമുണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥകൾ കാരണം ഒട്ടും മഴയില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷംന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പങ്ങനത്തൊരു മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഭയങ്കര വെയിലാണ് മഴ നമുക്ക് മര്യാദയ്ക്ക് കിട്ടിയിട്ടേയില്ല കഴിഞ്ഞ വർഷവും കഴിഞ്ഞേൻ്റെ മുൻപത്തെ വർഷവും പ്രളയത്തിൻ്റെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വെള്ളമായിരുന്നു കഴിഞ്ഞ വർഷവും അത്യാവശ്യം മഴയൊക്കെയുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ഭയങ്കര ശോകമാണ് മഴേൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഭയങ്കര ശോകാണ് ഈ വർഷം അപ്പം ആ നമുക്കിപ്പം എനിക്ക് തോന്നുന്നു അടുത്ത വർഷാവുമ്പോഴ്ത്തേന് നമ്മുടെ ജീവിതത്തെ നല്ലോണം ബാധിക്കും കാരണം നമുക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ വരും അത് നമുക്ക് ഭയങ്കരൊരു ഗതികേടായിരിക്കും